ഏറ്റോം വളരെ സ്വാധീന സ് ശക്തിയുള്ളൊരു പരസ്യംന്നു പറയുന്നത് മൊബൈൽ ഫോണെന്നെയാണ് ഇപ്പോൾ എന്ത് കാര്യങ്ങളാണെങ്കിലും നമുക്കൊരു പെട്ടെന്നൊരു ന്യൂസ് അപ്ഡേറ്റൊക്കെ വരുന്നത് മൊബൈൽ ഫോണിൽത്തന്നെയാണ് അപ്പോൾ മൊബൈൽ ഫോണ് എന്നുപറയുന്നത് ടി വിയിൽ വന്നാൽ എല്ലാവർക്കും അത് എത്തില്ലെങ്കിലും ഇപ്പോൾ അധികം ആൾക്കാരുടെ കയ്യിലും സ്മാർട്ട് ഫോണുള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു പെട്ടെന്ന് പരസ്യം വഴി എല്ലാ പരസ്യങ്ങളും പെട്ടെന്ന് എത്തുന്ന ഒരു കാര്യം എന്നുപറയുന്നത് മൊബൈൽ ഫോണിലൂടെത്തന്നെയാണ്